നമ്മുടെ പ്രദേശത്ത് ഓടകളെന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ടതാണ് അത് മഴ പെയ്താൽ വെള്ളം ഒരു ശകലം ഒടയിൽക്കൂടെ പോവില്ല വരുന്ന വെള്ളം മഴ പെയ്ത് വരുന്ന ചെളിയും ഇലയും എല്ലാം വന്ന് ഓടകളിൽ നിറഞ്ഞ് കിടക്കുന്നത് കൊണ്ട് വരുന്ന വെള്ളം എല്ലാം ഓടയ്ക്ക് മീതെ കൂടെ പോയി സ്ഥലങ്ങളെല്ലാം വ്യാപിച്ച് കിടക്കും അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ ബസ്സ് വാഹന ഗതാഗതങ്ങൾ വരെ തടസ്സപ്പെട്ടാണ് നിൽക്കുന്നത് ചിലപ്പം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറോളം ഇത് ഓടകൾ എല്ലാം മെച്ചപ്പെടാത്തതാണ് ഇതിന് കാരണം അല്ലാതെ സർക്കാർ കൊടുക്കുന്ന ഫണ്ട് പഞ്ചായത്ത് അതിൻ്റെ രീതിയിൽ വിനിയോഗിച്ച് സൈഡ് ഭാഗങ്ങളെല്ലാം കെട്ടി എടുത്താൽ നമ്മുടെ ഗ്രാമത്തിലെ ഓടയുടെ പ്രശ്നങ്ങളെല്ലാം മാറുന്നതാണ്